വ്യത്യസ്ത പഠന ശൈലികളോ കഴിവുകളോ ഉള്ള വിദ്യാർത്ഥികളെ സ്കൂളുകൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം ആദ്യം ഒരു ക്ലാസ് റൂമിൽ തന്നെ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ പഠനം നൽകുക ആതിനുള്ള പ്രാഥമിക അധ്യാപനങ്ങൾ നൽകുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമതുള്ള സ്കീമാണ് ഒരു പദ്ധതിയാണ് ഇതിന് വേറിട്ട് നിർത്തുന്നത് അഥവാ ഓരോ വിദ്യാർത്ഥികൾക്കും അവർക്ക് യോജിച്ച അവരുടെ പഠന ശൈലികൾക്ക് യോജിച്ച അല്ലെങ്കിൽ അവരുടെ കഴിവുകൾക്ക് യോജിച്ച മെൻ്റർമാരെ നൽകുക എന്നുള്ളതാണ് ഒരു മെൻ്റർർഷ അപ്പോൾ ഇതിലൂടെ മുന്നോട്ട് നയിക്കുന്നത് ഓരോ വിദ്യാർത്ഥക്കും ആ വിദ്യാർത്ഥിയുടെ രീതിയിലുള്ള പഠനശൈലികൾക്ക് സഹായകമാകുന്ന അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഒരു ഗൈ്ഡ് അല്ലെങ്കിൽ ഒരു മാർഗ്ഗ നിർദ്ദേശി അതിൽ വലിയ ഒരു സഹായി ഒരു ഒരു ഗുരു അതാണ് ഈ മെൻറർഷിപ്പ് സ്കീമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ ഇങ്ങനത്തെ സ്കീമ ഉണ്ടാാവുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് തൻ്റേതായുള്ള പഠന ശീലം അതിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടു പോവാം അതിന് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്ന ഈ മെൻ്റർക്ക് മനസ്സിലാക്കുകയും അതിന് അനുസരിച്ചു കുട്ടിയെ ആ വിദ്യാർത്ഥിയെ സഹായിക്കാനാകും എന്നുള്ളതാണ് ഈ സ്കീമിലുള്ള ഒരു ഒരു റിസൾട്ട എന്നുള്ളത് അതുപോലെ ആ കുട്ടിയുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ അവൻ ആവശ്യമായ എല്ലാ സഹായവും ഇയാൾ നൽകും ഈ മെൻ്റർ നൽകൻ കഴിവുള്ളവനാവണം എന്നുള്ളതാണ് മറ്റൊരു സംഭവം ഒന്നെങ്കിൽ അയാൾ ആ കുട്ടിയെക്കുറിച്ചു കൂടുതൽ അറിയുക അവൻ്റെ അവസ്ഥവിശേഷങ്ങളും അവൻ്റെ അവസ്ഥകളെയും വീട്ടിലെ കാര്യങ്ങളെയും അവൻ്റെ കഴിവുകളെയും അവൻ്റെ പരിമിതികളെയും മനസ്സിലാക്കി അവൻ്റെ പരിമിതികൾക്ക് അപ്പുറത്ത് അവനെ പറക്കാൻ വിടുക എന്നുള്ളതാണ് ഈ മെൻ്ററിൻ്റെ അടുത്തൊരു അടുത്ത ഒരു ലക്ഷ്യം എന്നുള്ളത് ഇപ്പം ഇതിലൂടെ നമുക്ക് വിദ്യാർത്ഥികളെ അവർക്ക് എത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് ഉയർത്താൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു മുൻ ഒരു പദ്ധതിയുടെ ഒരു ഒരു എന്ത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇനിയും എന്ന് നമുക്ക് പറയാൻ കഴിയും പിന്നെ അതില്ലെങ്കിൽ പഠന ശൈലികൾക്കനുസരിച്ച് അല്ലെങ്കി സ്കില്ലുകൾക്ക്നുസരിച്ച് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക അല്ലെങ്കി ഒരു ക്ലബ് ഒരു ക്ലബ് സിസ്റ്റം പല രാജ്യങ്ങളിലുള്ള പോലെ ഓരോ ക്ലബുണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു സർക്കിള് അവിടെ അവർ പരസ്പരം അവരെ കഴിവുകളെ എങ്ങനെ പരിപോഷിപ്പിച്ചെടുക്കാമെന്ന് അവർ പരസ്പരം കണ്ടെത്തുകയും അവർ അതിനു വേള്ള മുന്നേറ്റങ്ങൾ നടർത്തുകയും ചെയ്യാ വിദ്യാർഥികൾക്കിടയിൽ തന്നെ അവരരുടേതായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്തും ഇനി അതിന് വേണമെങ്കിൽ അവർക്കൊരു ഗൈഡ് എന്ന നിലക്കൊരു ടീച്ചറും വച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നടപ്പ് പിന്നെ പഠന ശൈലി ആകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ പഠിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു റിസ്കി എലമെൻറ്റാണ് എല്ലാം അവരുടേതായുള്ള പഠനശൈലികളിലൂടെ ഒരാൾക്ക് കേൾക്കുമ്പോ മറ്റൾക്ക് റഡിയാവണമെന്നില്ല അപ്പ എല്ലാരും ആദ്യം എല്ലാവരും ഒത്തിച്ചു കൊള്ളൻ ഒന്നിച്ചു കഴിയുന്ന രീതിയിൽ ഒരു ക്ലാസ് എടുക്കുകയും പിന്നെ ഓരോരുത്തർക്കും വേണ്ടപോലെ രീതിയിൽ അവരെ സഹായിക്കുകയും ചെയ്യുന്നുള്ളതാണ് മറ്റൊരു മുന്നേറ്റം